ഇന്നത്തെ കാലത്ത് സാങ്കേതികവിദ്യക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു കാലഘട്ടാണ് പണ്ടത്തെ കാലം പണ്ട് പണ്ടത്തെ കാലഘട്ടവുമായി നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് പണ്ട് ഈ ഒരു സാങ്കേതികവിദ്യകൾ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല ഫോണും മറ്റു ടി വിയും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു വീടുകളില് കുറച്ചു വീടുകളിൽ മാത്രമായിരുന്നു റേഡിയോ മറ്റു കാര്യങ്ങളായിരുന്നു ആഷ് നമുക്ക് പുറംലോകവുമായിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നത് പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ടി വി വരാൻ തുടങ്ങി പക്ഷേ എല്ലാ വീടുകളിലും ടി വി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രം ടി വി ഉണ്ടായിരുന്നു അപ്പോൾ മറ്റ് വീടുകളെല്ലാം മറ്റ് പരിപാടികൾ കാണാൻ വേണ്ടി അങ്ങനെ വീടുകൾ അങ്ങനെ ടി വി ഉള്ള വീടുകളിലോട്ട് വരുമായിരുന്നു പിന്നെ ഫോണും കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വന്നത് അതിനുമുമ്പ് വരെ കത്തുകൾ ആയിരുന്നു ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ ഒരാളുമായിട്ട് സംസാരിക്കാനും മറ്റും കത്തിലൂടെയായിരുന്നു നടത്തിയിരുന്നത് പിന്നെ ഫോൺ വന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം സാങ്കേതികവിദ്യയിൽ നോക്കുകയാണെങ്കിൽ ഫോണും ലാപ്ടോപ്പ് ടി വി അങ്ങനെ ഇതൊന്നുമില്ലാത്ത വീടുകൾ ഇല്ല എന്നു വേണം തന്നെ പറയാം ഉം കൊച്ചുകുട്ടികൾക്ക് വരെ ഫോൺ ഫോണുകൾ ഉണ്ട് ഫോൺ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കായാണ് എല്ലാ കാര്യങ്ങൾക്കും അവർക്കും അറിയാം അപ്പോൾ ഇന്ന് ഫോൺ ഇല്ലാത്ത ഒരാൾ പോലുമില്ല ദിവസവും ഒരു കോൾ പോലും അല്ലെങ്കിൽ ഒരു കോള് പോലും ചെയ്യാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം സമയം ഒരുപാട് ലാഭമാണ് സാങ്കേതിക വിദ്യയുടെ ഒരുപാട് പുരോഗമനം തീർച്ചയായും നമ്മളെ മനുഷ്യരാശിയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സമയം ഒരുപാട് ലാഭമാണ് കാര്യങ്ങൾ വേഗം നമുക്ക് പറയാനും മറ്റും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ നമുക്ക് ലഭ്യമാണ് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഉണ്ട് അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളും മറ്റു വാർത്തകളും മറ്റും അറിയാൻ വിരൽത്തുമ്പിൽ അല്ലെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും അങ്ങനെ ജീവിതത്തെയും നമുക്ക് ഒരുപാട് നമ്മളെ സ്വാധീനിച്ചതാണ് സാങ്കേതികവിദ്യകൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നവർ ആയിക്കോട്ടെ അവർക്ക് തീർച്ചയായും ഫോണും മറ്റു കാര്യങ്ങൾ എല്ലാം ആവശ്യമുണ്ട് കാരണം അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടാകും അപ്പോൾ സാങ്കേതിക വിദ്യകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതുപോലെ ചീത്ത വശങ്ങളും ഉണ്ട്